എൻ്റെ പ്രിയപ്പെട്ട ഋതു മഴക്കാലം തന്നെയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയൊരു സമാധാനവും സുഖവുമാണ് ഓരോ രീതിക്കും വരുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടില് അല്ലെങ്കിൽ ചൂടെടുത്തിട്ടാണെങ്കിലും ഇപ്പോൾ വേറെ പല ബുദ്ധിമുട്ടുകളും ഒന്ന് മഴ പെയ്തു കഴിഞ്ഞു നമ്മൾ മഴയോടൊപ്പം ഒന്ന് കിടന്നു കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങളും മാറാറുണ്ട് മഴ ഒരു സമാധാനത്തിൻ്റെ പ്രതീകമാണ് എനിക്ക് തരാറുള്ളത് മഴയുടെ മഴയുടെ മഴത്തുള്ളികളുടെ ആ ഒരു സൗണ്ടും പിന്നെ അത് മാത്രല്ല ആ ഒരു കാർമേഘങ്ങളും ഞാനൊരുപാട് മേഘങ്ങളെ ഒക്കെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് മേഘങ്ങളായിക്കോട്ടെ അങ്ങനെ ഇരുണ്ടു കൂടുന്നതും പിന്നതിൻ്റെ ഒരു മഴ വരുമ്പോൾ ഒരു മേഘം മഴ വന്നു കഴിഞ്ഞൊരു മേഘം മഴ എത്താറാവുമ്പോൾ ഒരു മേഘം അങ്ങനെ കാർമേഘങ്ങളുടെ ഒരു ഒരു വ്യത്യസ്തമായ രീതിക്കുള്ള ശൈലികൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിലുള്ള ചിഹ്നങ്ങളോട് അങ്ങനെയൊക്കെയാണ് മേഘങ്ങളെ കാണപ്പെടാറുള്ളത് രാവിലൊരു ചെറിയൊരു വെയിലാണുന്നുണ്ടെങ്കിലും ഇടക്കൊന്നു വെയില് വന്നു കഴിഞ്ഞാൽ ഒരു കുറച്ചു നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മഴ വരുമ്പോൾ ആ ഒരു അന്തരീക്ഷത്തുണ്ടാവുന്ന മാറ്റങ്ങള് തന്നെ ഒരു പ്രത്യേകതരമാണ് പിന്നെ മഴ പെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് മണ്ണിൻ്റെ മണം അതായത് എപ്പൊളും എപ്പോ മഴ പെയ്താ എപ്പോ മഴ പെയ്താലും ആ ഒരു പുതു മണം അത് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം തന്നെയാണ് പിന്നെ രാത്രിയിലുള്ള ഉറക്കം ഞാന് ഉറക്കത്തിനു പ്രധാനം പ്രാധാന്യം കൊടുക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ മഴയുള്ളപ്പോൾ ഉറങ്ങാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലത് സമാധാനായൊരു അതായത് ഒരു മഴയുടെ ആ ഒരു പുറമെയുള്ള മഴയുടെ സൗണ്ട് ആയിക്കോട്ടെ ഒരിടിമിന്നൽ ചില നേരങ്ങളിലത് ഭയാനകമായിരിക്കാം പക്ഷെ എനിക്ക് കൂടുതലും മഴയോടാണ് താല്പര്യം മഴയത്ത് മഴയത്തതിങ്ങനെ മഴയത്ത് വിദ്യാർത്ഥികൾ ഇങ്ങനെ കുട പിടിച്ച് സ്കൂളുകളിലേക്ക് വിദ്യാലയങ്ങളിലേക്ക് പോകുമ്പോൾ എനിക്കെൻ്റെ കുട്ടിക്കാലം ഓർമ വരാറുണ്ട് പിന്നെ ആ മഴയത്ത് ചായ കുടിക്കുമ്പോൾ ചായയും കൂടൊരു എണ്ണപ്പലഹാരങ്ങളോ അങ്ങനെന്തെങ്കിലും കഴിക്കുമ്പോൾ അതുമൊരു ആനന്ദം നൽകുന്നൊരു കാര്യം തന്നെയാണ് മഴ എന്ന് പിന്നീടോർമ വരുമ്പോൾ അമ്പലങ്ങളില് അതായത് ഒരുപാട് അമ്പലങ്ങള് നമ്മള് പലതും പല പല സ്ഥലങ്ങളിലും കാണാറുണ്ട് മഴയത്ത് മഴ അതായത് അമ്പലങ്ങളുടെ അടുത്തുള്ള കുളങ്ങള് നിറയാറുണ്ട് പുഴകള് ഇതെല്ലാം നിറഞ്ഞു കവിയാറുണ്ട് ഒരുപാട് കവിയുന്നതല്ല ആതായതൊരു ഒരു പരിധി വരെ കാണാനൊക്കെ അതായത് ആ കുളം നിറഞ്ഞ് കിടക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം കണ്ണില് കുളിർമയേകുന്നൊരു കാഴ്ചതന്നെയാണ് മഴയത്തിങ്ങനെ പുഴകളും കുളങ്ങളുമൊക്കെ നിറഞ്ഞ് കാണുമ്പോൾ പിന്നെ വൈകുന്നേരം വൈകുന്നേരങ്ങളില് മഴ ഇങ്ങനെ പെയ്യുമ്പോൾ കാക്കകളായിക്കോട്ടെ പക്ഷികളായിക്കോട്ടെ അവരുടെ കൂടണയാൻ വേണ്ടി ഇങ്ങനെ ഓടുമ്പോൾ അതായത് കൂടണയാൻ വേണ്ടി നിൽക്കുമ്പോൾ കൂടെ ഒരുപാട് കൂട്ടം കാക്കകളായിക്കോട്ടെ അതിങ്ങനെ പോകുന്നത് കാണാൻ ഒരു രസാണ് പിന്നെ അടുത്തത് കാറ്റിൻ്റെ കാര്യമാണ് അതായത് ഇപ്പോൾ ഒന്ന് പുറത്ത് വന്നിരിക്കുമ്പോൾ അല്ലെങ്കില് ഉമ്മറപ്പടിയില് വന്നിരിക്കുമ്പോൾ മഴയത്തൊരു ഇളം കാറ്റുകള് വീശുമ്പോൾ ഒരു തണുത്തൊരു അനുഭൂതിയാണ് ഒരു സമാധാനത്തിൻ്റെ ആയിക്കോട്ടെ ഒരു ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് ആ ഒരു കാറ്റിൽ നിന്നും ലഭിക്കാറുള്ളത് നമ്മളുടെ ശരീരം തന്നെ നമ്മളുടെ അ ആത്മാവ് തന്നെ ഉള്ളിൽ നിന്ന് ഒരു അതായത് നമ്മള് ഒരിക്കലും ഇങ്ങനെ മൂകത ആയിട്ട് ഇരിക്കില്ലേ നമ്മളുടെ എപ്പോഴും മുഖം ഇങ്ങനെ അതായത് തെളി തിളങ്ങി നിക്കാറാണ് പതിവ് മഴക്കാലത്ത് പ്രത്യേകിച്ച് അതായത് പിന്നതു മാത്രമല്ല മഴയത്തിങ്ങനെ മഴയത്ത് കളിക്കുക പുറത്തിറങ്ങി നടക്കുമ്പോൾ പിന്നെ ചെറുപ്പ കാലത്ത് അതായത് കുട്ടിക്കാലത്ത് മഴയത്ത് പേപ്പർ പേപ്പർ കൊണ്ട് കപ്പലുണ്ടാക്കി കളിച്ചത് കപ്പലില് നമ്മളുടെ സ്വയം പേരുകളൊക്കെ എഴുതി വെള്ളത്തിലൂടെ ഒഴിച്ചു വിടുമ്പോൾ വെള്ളത്തിലൂടെ ഒലിപ്പിച്ചു വിടുമ്പോൾ അതൊരു പ്രത്യേകം അതെവിടം വരെ എത്തും അതൊക്കെയൊരു കൗതുകമേറിയ കാലം തന്നെയായിരുന്നു മഴ എന്ന് പറയുമ്പോൾ എനിക്ക് കൂടുതലും കുട്ടിക്കാലമാണ് ഓർമ വരാറുള്ളത് മഴയത്ത് വിദ്യാലയങ്ങളിൽ പോയി വരുമ്പോൾ നമ്മളുടെ മാതാപിതാക്കൾ പലഹാരങ്ങൾ ഉണ്ടാക്കി വെക്കുകയും പിന്നെ തലേല് വെള്ളം ഒക്കെ ഇറ്റു വീണിട്ടുണ്ടെങ്കിൽ ആ സ്നേഹ വാത്സല്യത്തോടെ തല തുവർത്തി തരികയും അതൊക്കെ എനിക്ക് ഓർമ വരാറുണ്ട് മഴയത്തു പിന്നെ പിന്നെനിക്ക് ചെയ്യാനുള്ളത് ഓണക്കാലത്താണ് അതായത് ചിങ്ങ മാസം മാസം ആയിട്ടൊക്കെയാണ് മഴ കൂടുതലും വരാറുള്ളത് അതായത് വേനൽ വറ്റി വരണ്ട വേനലുകഴിഞ്ഞു മഴ ഇപ്പോൾ കർഷകർക്കായിക്കോട്ടെ ആർക്കായിക്കോട്ടെ അതൊരു സമാധാനം ഒരുപാട് കർഷകര് മഴയില്ലാത്ത ബുദ്ധിമുട്ടിയിട്ട് നിൽക്കുന്നുണ്ടാകും പക്ഷെ ആ ഒരു കർഷകർക്കും ഇത് വളരെ സമാധാനമേറി അതായത് അവരത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചെയ്യുന്നതാണ് ഒരു വിത്തുകൾ വിളയുകയും എല്ലാം ചെയ്യുന്നത് അപ്പോൾ അവർക്ക് മഴ ലഭിക്കാതാവുമ്പോൾ അതവരെ ബാധിക്കാറുണ്ട് അപ്പോൾ മഴ കിട്ടുമ്പോൾ അതവർക്കും ഒരു സമാധാനമാണ് പിന്നെ ചിങ്ങപ്പുലരി അതായത് ചിങ്ങമാസം പൂക്കളമിട്ട് അപ്പോൾ അത്തം കറുത്താലും ഓണം വെളുക്കും എന്നുള്ള രീതിക്കുള്ള പഴഞ്ചൊല്ലുകളൊക്കെ ഞാൻ മഴക്കാലം വരുമ്പോൾ ഓർക്കാറുണ്ട് മഴയത്ത് ചില നേരങ്ങളില് വലിയ പൂക്കളമൊക്കെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞ് മഴ പെയ്തു കഴിഞ്ഞാൽ സങ്കടായിരിക്കും പക്ഷെ എന്നാലും ആ ഓണ ഓണക്കാലങ്ങളില് ആ ഒത്തൊരുമയും ആ ഒരു മഴയും ഒക്കെ വളരെ അതായത് മനസിന് കുളിർമ നൽകുന്ന ഒരു കാലം തന്നെയാണ് മഴക്കാലമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത്രെയുമാണ് എനിക്ക് കൂടുതലും പുറകോട്ട് ചിന്തിക്കാനാണ് മഴക്കാലം എന്ന് പറയുമ്പോൾ കുട്ടിക്കാലം ചിന്തിക്കാനാണ് കുറച്ചുകൂടി എനിക്കിഷ്ട്ടം അങ്ങനെ അതാണിത്ര അതുകൊണ്ടാണ് ഇതൊക്കെക്കൊണ്ടാണ് എനിക്ക് മഴക്കാലം ഇഷ്ടപ്പെടാൻ കാരണം